ആ ട്രാൻസ്പോർട്ട് എജൻസിയല്ലേ ഞാനിന്ന് രാവിലെ എയർ പോർട്ട് വരെ പോവാൻ വേണ്ടിയിട്ട് കാര് ബൂക്കെയ്തിരുന്നു അപ്പോള് അവര് കൊണ്ടുവന്നൊരു ഇന്നോവ കാറായിരുന്നു കാറത് ഒരുപാട് പഴക്കമുള്ള കാറായിരുന്നു എനിക്ക് യാത്രാനുഭവം വളരെ മോശപ്പെട്ടതായിരുന്നു കെട്ടാ എന്നുവച്ചാല് കാര് എൻഡിലെ സീറ്റ് കീറിയാണിരുന്നത് ഞാൻ പിന്നിലത്തെ സീറ്റിലാണ് ഇരുന്നത് അതിൻ്റെ വലത് വശത്ത് മൊത്തം കീറി അതിൻ്റകത്തുള്ള സ്പോൻജെല്ലാം വെളിയില് വന്ന് അങ്ങനെയാണിരുന്നത് പിന്നെ ഒരുവിധത്തിലാണ് ഇരുന്ന പിന്നെ എ സി എ സിയാണെങ്കി തണുപ്പില്ല എ സി തണുപ്പില്ലാതെ നിങ്ങളെന്തിനാണ് ഇതിനകത്ത് എ സി വെച്ചേക്കുന്നത് ങേ അതെന്തേലും കാര്യമുണ്ടാ നിങ്ങള് എ സി കാര് എന്ന് പറഞ്ഞല്ലേ നിങ്ങളത് പരസ്യം ചെയ്യുന്നത് ഞാൻ എ സി കാറെന്ന് പറഞ്ഞാണ് ബുക്കെയ്തത് അപ്പോള് വന്ന ഇനോവ ഇനോവ കാറിലെന്നാ എ സിയില്ല ഇപ്പോഴത്തെ ചൂടില് എ സിയില്ലാതെ എങ്ങനെയാണ് അത് ഒട്ടും ശരിയായില്ല പിന്ന ഈ കാറിൻ്റെ പാസ്സഞ്ചർ സീറ്റാണെങ്കില് ഒട്ടും ഇരിക്കാന് ഒരു സുഖമില്ല അത് ഇത്രയും ഇതായിട്ടും നിങ്ങളിത്രയും ഒരു പാസ്സഞ്ചർ ഓടുന്ന വണ്ടിയായിട്ട് ഇത്രയും എയർ പോർട്ടിലൊക്കെ ഓടുന്ന വണ്ടിയല്ലേ അപ്പോള് നിങ്ങള് സീറ്റ് ശരിയായിട്ട് മാറണ്ടേ ങേ പിന്നെ കാറിൻ്റെ എൻജിനാണെങ്കില് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന് കാര് പോവാൻ തൊട്ട് ഭയങ്കര സൗണ്ടാണ് സൗണ്ടെന്ന് പറയുമ്പോള് നമുക്കകത്തിരിക്കുന്നവർക്ക് വരെ കേള്ക്കാൻ പറ്റുന്ന സൗണ്ട് ഗ്ലാസിട്ട് എ സിയിട്ടാണ് പോയ എ സി പിന്നെ കാര്യമില്ല എ സി ചൊവ്വെ തണുപ്പില്ല എങ്കിലും പിന്നെ അത് ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റു പിന്നെ നിങ്ങളുടെ ഡ്രൈവറാണെങ്കില് സ്പീഡ് സ്പീഡെന്ന് പറയുമ്പോള് ഭയങ്കര വേഗത്തിലാണ് ഓട്ടിക്കണ ഒരു രക്ഷയില്ലാത്ത വേഗമാണ് അപ്പോള് പുള്ളി വെട്ടിച്ച് വളയ്ക്കുന്നു പിന്നെ ഓവർടേക്ക് അപകടകരമായ രീതിയിലുള്ള ഓവർടേക്കാണ് ചെയ്യുന്നത് അപ്പോഴിങ്ങനെയുള്ള ഡ്രൈവറിനെയൊക്കെ വച്ചുകഴിഞ്ഞാല് നിങ്ങളുടെ എജൻസിക്കാണ് അതിന്റെ കുറ്റം വരുന്നത് മനസ്സിലായോ നമ്മളെ പോലുള്ള സാധാരണക്കാര് നിങ്ങളെ വിശ്വസിച്ചല്ലേ നിങ്ങളെ ഏജൻസിയില് വിളിച്ച് ഇത് ബുക്കെയ്യുന്നത് കാര് ബുക്കെയ്യുന്നത് അപ്പോള് നിങ്ങളിങ്ങനെ മോശപ്പെട്ട സർവിസെയ്ത് കഴിഞ്ഞാല് ഇങ്ങനൊരു മോശ പ്രവർത്തനം ആണെങ്കില് അത് ശരിയല്ലല്ല അപ്പോള് വാഹനം ഒന്നുകൂടെ നിങ്ങളൊന്ന് കുറച്ചൂടൊന്ന് കാര് ഒന്ന് ശരിയാക്കണം വാഹനം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി എടുത്താലേ നിങ്ങള്ക്ക് ഇനി ഞാനെന്തായാലും നിങ്ങളുടെ ഇതീന്ന് ബൂക്കെയ്യൊള്ളു അല്ലെങ്കില് പിന്നെ ഈ വണ്ടി ബുക്കെയ്തിട്ട് കാര്യമില്ല വേറെ ഒരുപാട് ഏജൻസികളുണ്ട് എനിക്കതിനെ വിളിച്ച് ബുക്യ്യാം അപ്പോള് ഇങ്ങനെ ഒരു ഇത് ചെയ്യാനാണെങ്കില് അത് ശരിയല്ല അപ്പോഴെന്തായാലും നിങ്ങള് ചെയ്തതു മോശമായിപ്പോയി അടുത്ത തവണ ഞാൻ നോക്കട്ട് അടുത്ത തവണ ഞാനൊന്നൂടെ ബുക്യ്യാം അടുത്ത തവണ ഇത് പോലെ കാര് മോശമാണെങ്കില് ഞാൻ നിങ്ങടയിന്ന് ബുക്കെയൂല ഞാൻ എനിക്ക് വേറെ ഏജൻസിയുണ്ട് ഞാൻ അവരെയിന്ന് ബുക്കെയും ഓക്കേ എന്തായാലും